എൻ്റെ പേര് പാട്രിക്ക് എന്നാണ് ഞാനെൻ്റെ ഫോൺ നമ്പറ് പറയാം എട്ട് ഒൻപത് ഏഴ് അഞ്ച് ആറ് നാല് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ നിന്ന് നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത് രാവിലെ മുനീശ്വരൻ ഹിൽസിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തത് അഡ്വാൻസ് പെയ്മെൻറ് ആയിട്ട് ഒരു രണ്ടായിരം രൂപ പേ ചെയ്യുകേം ചെയ്തിട്ടുണ്ടായിരുന്നു മുനീശ്വരൻ ഹിൽ ഹിൽസിൽ സൺറൈസ് കാണുന്നതിനു വേണ്ടിയാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തത് അതായത് ആറ് മണിക്ക് അവിടെ എത്തുന്നതിന് കണക്കായിട്ട് ക്യാബ് എത്തണം എന്നുള്ള രീതിയിൽ ഞാനത് മെൻഷൻ ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ ഏഴു മണിയായി ഇതുവരെ ക്യാബ് എത്തിയിട്ടില്ല ഡ്രൈവറെ വിളിക്കുമ്പോൾ ഡ്രൈവറ് പ്രതികരിക്കുന്നില്ല അതിനു കാരണമെന്താന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു